പണ്ടത്തെ നൃത്തരീതികളെന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക കൂടുതലും കഥകളി പിന്നേ തിരുവാതിര അങ്ങനെയുള്ള ട്രഡീഷണലായിട്ടുള്ള നൃത്ത രീതികളൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ പുതിയ രീതിയിലേക്കു വന്നു കഴിഞ്ഞപ്പോൾ ഡാൻസിങ്ങിൻ്റെ പല തരത്തിലുള്ള വേരിയേഷൻ അതായത് പല തരത്തിലുള്ള ഡാൻസുകൾ ഇറങ്ങി അതായത് എന്താ പറയുക ഇപ്പൊൾ ഡിഫറൻറ്റ് ടൈപ്പ്സ് അതായത് ഇപ്പൊൾ പിള്ളേരൊക്കെന്നു പറയുമ്പോൾ ബ്രേക്ക് ഡാൻസ് അങ്ങനത്തെ ഡാൻസ് ഡാൻസിൻ്റെ തന്നെ വിവിധതരങ്ങളുള്ള ഡാൻസുകളൊക്കെ ഇറങ്ങിത്തുടങ്ങി പിന്നെ ഓരോ ഫാഷനില് പുതിയ പുതിയ രീതികളിലൊക്കെയുള്ള ഡാൻസുകളൊക്കെയിപ്പോൾ പൊതുവെ കണ്ടുവരുന്നുണ്ട് പഴയ ഡാൻസിനെ അപേക്ഷിച്ചു നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഡാൻസുകളില് പലതരത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് എന്താന്നു വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ഡാൻസും ഇങ്ങനത്തെ ഡാൻസുകളുമായിട്ട് ഈ പണ്ടത്തെ നാടോ എന്താ പറയുക നാടോടി നൃത്തം പോലുള്ളവയൊക്കെ വല്ലാണ്ട് വേറിട്ട് നിക്കുന്ന ഒരിതാണ് ക്ലാസിക് ട്രഡിഷണലായിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇപ്പൊൾ നമ്മക്ക് കാണാൻ വളരെ കുറവാണ് ആരും അങ്ങനത്തേലേക്ക് പോകുന്നില്ല എല്ലാവരും പുതിയ രീതികളിലുള്ള ഡാൻസുകളാണ് പഠിക്കാൻ ശ്രമിക്കുന്നത് കൂടുതലായിട്ടും അങ്ങനെ കുറെ വ്യത്യാസങ്ങളൊക്കെ ഡാൻസിൽ തന്നെ നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുണ്ട്